ട്രക്കിങ്ങ് പൂർത്തിയാകുമ്പോഴുള്ള മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും ട്രക്കിങ്ങ് പൂർത്തിയാകുമ്പോഴത്തെ മാനസികാവസ്ഥയെന്നു പറയുമ്പോൾ കാരണം നമ്മളൊരു വലീയ ഒരു ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം അനുഭവപ്പെടും കാരണമെന്താണെന്നു വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ വളരെ വിജയകരമായി ചെയ്തു പൂർത്തിയാക്കി വന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ വലിയ സന്തോഷം അനുഭവപ്പെടും കാരണം ആ നമ്മൾക്ക് പോയപ്പോൾ ക്ഷീണം ഉണ്ടായിരുന്നു തളർച്ച ഉണ്ടായിരുന്നു പോരാൻ ഇറങ്ങിയപ്പോൾ നമ്മൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇതെല്ലാം മാറിയിട്ട് നമ്മൾ തിരിച്ചിതെല്ലാം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴെന്നു പറയുമ്പോൾ നമ്മൾ വളരെ സന്തോഷത്തിലായിരിക്കും കാരണം നമുക്ക് വീട്ടിൽ ചെന്ന് ആളുകളോട് പറയാൻ പറ്റും പിന്നെ നമുക്ക് തന്നെ എന്തോ വിജയിച്ച ഒരു ഭാവം ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കാഴ്ച്ചകൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില ചില കാഴ്ച്ചകൾ നമ്മളെ പേടിപ്പെടുത്തിയിട്ടുണ്ടാകും ചില ചില കാഴ്ച്ചകൾ നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും ചില ചില കാഴ്ച്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പിന്നെ നമ്മളിവിടെവരെ എത്തിപ്പെട്ടല്ലോ എന്നൊരു വല്ലാത്ത അവസ്ഥയും നമുക്കുണ്ടായിരിക്കും കാരണം നമ്മൾ ഈ ഇത്രയും യാത്ര പിന്നിട്ടു നമുക്ക് ക്ഷീണവും തളർച്ചയുമുണ്ടെങ്കിൽപ്പോലും നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു പോയിട്ട് അത് നിറവേറ്റി വന്നു എന്നുള്ളതിൻ്റെ വല്ലാത്തൊരു അടങ്ങാത്തൊരു സന്തോഷമൊക്കെ ട്രക്കിങ് പൂർത്തിയാക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കും അപ്പോൾ അതിനകത്ത് കാഴ്ച്ചകൾ നമ്മളെ എപ്പോഴും തന്നെയും ആളുകൾ പറയുന്നതനുസരിച്ച് അത്ഭുതപ്പെടുത്താറുണ്ട് സന്തോഷിപ്പിക്കാറുണ്ട് മാനസിക സന്തോഷത്തിന് പിന്നീട് വരാറുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ട്രക്കിങ് എന്നു പറയുന്നത്